എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാരുടെ ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ആണെങ്കിൽ അത് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ആരെങ്കിലും നമ്മളെ ഇപ്പോൾ ആ വരച്ചത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷവും അവർക്കുണ്ടാവുന്ന സന്തോഷവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറെയാണ് കാരണം ഒരാളുടെ ഫേസ് വരയ്ക്കുക എന്നുപറഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് വരയ്ക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുംകൂടി ഇൻറ്ററസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേച്ചർ ഫോട്ടോസ് ആന മയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കില്ലേ നമ്മളിപ്പോൾ സ്ഥലം നമ്മളിപ്പോൾ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇപ്പോൾ ഒരു പുഴ ഒഴുകുന്നു അതിൻ്റെ കൂടെയുള്ളൊരു മരം പിന്നെ എന്താണ് പറയുക ഇപ്പം പിള്ളേർ കളിക്കുന്നു അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വരയ്ക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം അത് നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം ചിലവഴിച്ച് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വരയ്ക്കുമ്പം നമുക്ക് കിട്ടുന്ന തൃപ്തിയും അത് കാണുന്ന അവർക്ക് കിട്ടുന്ന തൃപ്തിയും അത് വേറെ തന്നെയാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേറെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ആകാശത്ത് ഉണ്ടാവുന്ന നക്ഷത്രങ്ങൾ നമ്മളിപ്പോൾ ഒരു രാത്രി കാണുന്ന കാഴ്ചയും പകൽ കാണുന്ന കാഴ്ചയും ഒക്കെ വേറെ വേറെ ആയിരിക്കും അപ്പോൾ അത് രണ്ടും വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്